എനിക്ക് വരയ്ക്കാന് തോന്നാത്ത ദിവസങ്ങള് ഉണ്ടാകാറുണ്ട് അതിനുള്ളൊരു ആദ്യത്തെ കാരണമെന്ന് പറയുന്നത് നമുക്ക് ചിത്രം വരയ്ക്കാനായിട്ടൊരു മൂഡ് തോന്നണോലോ ഇപ്പോള് പെട്ടെന്ന് നമുക്ക് വരയ്ക്കണമെന്ന് തോന്നിയ ഉടനെ നമുക്ക് വരക്കാന് അങ്ങനൊരു മൂഡ് വരണമെന്നില്ല പിന്നെ നമ്മള് ബിസി ആണെങ്കില് നമ്മള്ക്ക് വരയ്ക്കാന് സാധിക്കാറില്ല

ആദ്യം മുതലേ എനിക്ക് വരയ്ക്കാനിഷ്ടമായിരുന്ന് അത് തന്നെയാണ് പിന്നെ ഇപ്പോള് സ്കൂളില് അല്ലെങ്കില് കോളേജില് പഠിക്കുന്ന സമയത്തൊക്കെ റെക്കോര്ഡ് ബുക്ക് ഒക്കെ നമ്മള് അങ്ങനെ വരച്ച് വരച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വരയ്ക്കാനായിട്ട് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളത് ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കില് നമുക്ക് അത് ഒരു നൂറ് ശതമാനം നല്ല ഒരു സംതൃപ്തി കിട്ടും നമുക്ക് അതില്നിന്ന് പിന്നെ വരയ്ക്കാന് എനിക്ക് പ്രചോദനം കിട്ടാറുള്ളതെന്ന് പറഞ്ഞാല് ഇപ്പോള് യു ട്യൂബൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാന് അപ്പോള് അതില് എന്തെങ്കിലൊക്കെ ഇങ്ങനെ കാണുമ്പോള് അതൊന്നു ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാകാറുണ്ട് അപ്പോള് നമ്മള് ഞാനെന്റെ വീട്ടിലത് ചെയ്തു നോക്കാറുണ്ട് ഇപ്പോള് വോളാര്ട്ട് അങ്ങനൊക്കെ കാണുമ്പോഴത്തേക്കും ഞാനെന്റെ വീട്ടിലത് ഞാന് കിടക്കുന്ന മുറിയില് ഞാനത് ഭിത്തിയിലൊക്കെ ഞാനങ്ങനെ ചെയ്തു നോക്കാറുണ്ട് പുതിയ പുതിയ കാര്യങ്ങള് ചെയ്യാന് വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മറ്റു ജോലികളുടെ കൂടെ ഞാനിതെങ്ങനെയാണ് ക്രമീകരിച്ച് കൊണ്ടുപോകാറുള്ളതെന്നുവച്ചാല് ഇഷ്ടമുണ്ടെങ്കിലും ഞാനത് ചിലപ്പോള് എനിക്ക് തോന്നാറുണ്ടെങ്കില് ഞാന് എന്റെ ജോലിയെല്ലാം ഞാൻ പെട്ടെന്ന് തീ ര്ത്തിട്ട് ഞാന് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഈ ചിത്രരചന എന്ന് പറയുന്നത് എനിക്ക് സന്തോഷം നല്കുന്ന ഒരു കാര്യമായതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഞാനങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ മറ്റുള്ളവര് ചെയ്യ് ചെയ്തുകാണുമ്പോള് അങ്ങനെ ചെയ്യാന് ചെയ്തു നോക്കാനൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പെട്ടെന്നൊരു മൂഡ് കയറിയിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് പിന്നെ നമ്മള് തന്നെ ചെയ്തിട്ട് നമ്മള് തന്നെ അതിൻറ്റൊരു ഭംഗി ആസ്വാദിക്കുമ്പോഴത്തേക്കിനും ആ ഇത് കൊള്ളാലോ എന്നുള്ള തോന്നലുണ്ടാകാറുമ്പോള് പിന്നെയും പിന്നെയും വരയ്ക്കാനുള്ളൊരു പ്രചോദനം എന്നില് നിന്നും ഞാന് കണ്ടെത്താറുണ്ട് പിന്നെ ഇപ്പോള് ഒത്തിരി അങ്ങനെ എപ്പഴൊന്നും വരയ്ക്കാറില്ല സമയം കിട്ടുമ്പോഴൊക്കെ വരയ്ക്കാറുണ്ട്